വിവാഹം എന്നത് വളരെയധികം ആർഭാടവും തൂർത്തും നിറഞ്ഞ ഒരു ഫങ്ഷനായിട്ടാണ് ഇന്ന് കണ്ടുവരുന്നത് സ്ത്രീ തന്നെയാണ് ധനം സ്ത്രീധനം ആവശ്യമില്ല എന്നുള്ളത് വെറും വാക്കുകളിലും കൂടി വന്നാൽ പേപ്പറുകളിലും മാത്രം ഇന്ന് കണ്ടുവരുന്നു ഒരു പെൺകുട്ടി മാതാപിതാക്കൾക്ക് ജനിച്ച് കഴിയുമ്പോൾ തന്നെ അവളെ വിവാഹം ചെയ്ത് വിടണം എന്നുള്ള ഉൽക്കണ്ഠകളാൽ വലയുന്ന മാതാപിതാക്കൾ എന്ന് വളരെയേറെയാണ് എനിക്കുമ്പോൾ തന്നെ ആ കുട്ടിയെ വിവാഹം ചെയ്തു വിടണം എന്ന കരുതലോടുകൂടി സാമ്പത്തികമായി എന്തെങ്കിലും സമ്പാദിച്ച് വെക്കുന്നവരും ഇന്ന് അല്ലെങ്കിൽ ആ കുട്ടിക്ക് വേണ്ടി ചെറിയൊരു സമ്പാദ്യം ബാങ്കുകളിൽ കൃത്യമായി നിക്ഷേപിച്ച് വരുന്നവരും ഇന്ന് കുറവല്ല ഒരു അപ്പർ ക്ലാസ് ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം കോടികളാണ് ഒരു വിവാഹത്തിന് അവരെ മുടക്കുന്നത് അത് കുട്ടിക്ക് പെൺകുട്ടിക്കുള്ള സമ്മാനമായിട്ടാണ് കരുതുന്നത് എന്നാൽ സമൂഹത്തിലെ പല ആളുകൾ പലതരത്തിൽ പെട്ടവരായകയാൽ എൻ്റെ കുട്ടിക്ക് കൂടി അവൻ്റെ കുട്ടിക്ക് കുറഞ്ഞു എന്നുള്ള താരതമ്യ പഠനങ്ങളും ഇന്ന് ഇല്ലാതില്ല പിന്നെ വധുവിന് സമ്മാനം നൽകുന്നത് സാധാരണ കണ്ടുവരുന്ന ഒരു കാര്യമാണ് മാതാപിതാക്കളുടെ ഭാഗത്ത് നിന്നും സ്ത്രീധനമായി തന്നെ ഒരു വലിയ സമ്മാനം വലിയ തുകകളാണ് ബാങ്ക് ബാലൻസായിട്ടും മറ്റ് സ്വർണ്ണമായിട്ടും ഒക്കെ നൽകുന്നത് പിന്നെ കൂട്ടുകാരാണെങ്കിൽ എന്തും സമ്മാനം നൽകാം എന്ന രീതിയിലേക്ക് ഇന്ന് എത്തിയിരിക്കുകയാണ് യൂട്യൂബ് വീഡിയോകളിലൊക്കെ കാണുന്നത് പോലെ വീട്ടുപയോഗ സാധനങ്ങൾ ഉപ്പ് മുതൽ കർപ്പൂരം വരെ സമ്മാനം നൽകുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടുവരുന്നു അതൊക്കെ പുതിയ ട്രെൻഡായിട്ടോ തമാശായിട്ടോ ഒക്കെ നമ്മൾക്ക് നൽകാവുന്നതാണ് അപ്പം സഭാകാര്യങ്ങളുമായി ആത്മീയതയുമായി ബന്ധപ്പെട്ടവരാണെങ്കിൽ വിവാഹ ദിവസം അത്ങ്കൽ അതിൻ്റെ തന്നെ പ്രാർഥനാ യോഗങ്ങളൊക്കെ നടത്തി പെൺകുട്ടികൾക്ക് ബൈബിളും കൊന്തയും ഒക്കെ നൽകി വരുന്ന പതിവ് നമ്മുടെ നാടുകളിലും നമ്മുടെ പള്ളികളിലുമൊക്കെയുണ്ട് എന്തായാലും ഒരു പെൺകുട്ടിയെ വധുവാക്കി ഒരുക്കി നിർത്തി അതിന് കല്യാണം കഴിച്ച് അയക്കണമെങ്കിൽ മാതാപിതാക്കൾക്ക് നല്ലയൊരു സമ്പാദ്യം ഇന്നത്തെ കാലത്ത് ആവശ്യമാണ് പിന്നെ വിവാഹ സഹായനിധിയൊക്കെ ഒരു വലിയ ആശ്വാസകരമായിട്ട് ഇന്ന് അനുഭവപ്പെടുന്നുണ്ട്